പത്രം വായിക്കാൻ കുട്ടികളെ കൊച്ചിലെ മുതൽ തന്നെ പ്രോത്സാഹിപ്പിക്കാറുണ്ട് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ എൻ്റെ അനുഭവം വെച്ചിട്ട് എൻ്റെ മാതാപിതാക്കൾ രാവിലെ തന്നെ പേപ്പറ് വായിക്കുന്ന ഒരു ശീലം എനിക്ക് തന്നിരുന്നു ഇപ്പോൾ അതുപോലെത്തന്നെ ഞാനെൻ്റെ മക്കളെയും പിന്നെ എൻ്റെ വീട്ടിൽ മലയാളം പേപ്പർ ആണ് വരുത്തിയിരുന്നത് അതുകൊണ്ടുത്തന്നെ എല്ലാദിവസവും മലയാളം പേപ്പറ് വായിക്കുന്ന ഒരു ശീലം ഞാനെൻ്റെ കുട്ടികൾക്ക് കൊടുത്തിരുന്നു അതവർ തുടരുകയും തുടക്കത്തിലൊക്കെ അവർക്ക് സ്പോർട്സ് പേജ് മാത്രം വായിക്കാനായിരുന്നു താല്പര്യം അതുകഴിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ അവർ വലുതായിക്കൊണ്ടിരിക്കുംതോറും വലുതാവുന്നതിനനുസരിച്ച് പിന്നെ അവർ മറ്റുള്ള പേജുകളൊക്കെ വായിച്ചു തുടങ്ങി അതെനിക്ക് മനസ്സിലായത് അങ്ങനെ പത്രം റെഗുലർ ആയിട്ട് വായിക്കുന്നത് മൂലം അവരുടെ ജി കെ നല്ല കണക്ക് ഡെവലപ്പ് ആകുന്നുണ്ടെന്ന് മനസ്സിലായി ക്ലാസിലൊക്കെ സഡൻലി ടീച്ചേഴ്സ് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുമ്പോൾത്തേക്കും പലപ്പഴും അവർക്ക് അതിന് നല്ലകണക്ക് ഉത്തരം പറയുവാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു അതവർ വൈകിട്ട് വീട്ടിൽ വന്ന് പറയുമ്പഴത്തേക്കും എനിക്ക് മനസ്സിലായി അത് ന്യൂസ് പേപ്പർ വായിക്കുന്നത് കൊണ്ടാണ് പത്രം വായിക്കുന്നത് കൊണ്ടാണ് ഈ ഗുണം അവർക്ക് കിട്ടുന്നതെന്ന് അതുകൊണ്ട് സ്ഥിരമായി പത്രം വായിക്കുന്നതിനെ കുറിച്ച് നമ്മൾ പ്രോത്സാഹിപ്പിക്കാറുണ്ട് തുടക്കത്തിൽ മലയാളം മാത്രമായിരുന്നു വായിക്കാനായിട്ട് പ്രോത്സാഹിപ്പിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ അതിനുശേഷം ഇംഗ്ലീഷും ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറും കൂടി വായിക്കുവാനായിട്ട് ഞാനവരെ പ്രോത്സാഹിപ്പിച്ചു ഇംഗ്ലീഷ് പേപ്പറ് വീട്ടിൽ വരുത്താത്തതുകൊണ്ട് അവർ മൊബൈലിൽ കൂടി തന്നെ ഓൺലൈൻ ആയിട്ട് ഇംഗ്ലീഷ് പേപ്പറ് വായിക്കുന്ന ശീലവുമുണ്ടായി അത് അവരുടെ കരിയറിനെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്